നമ്മളുടെ ജീവിതത്തില് അങ്ങനെ പഠിച്ചൊരു പാഠം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്ക് ഒരു എന്താ പറയുക ഒരു സമയം ഓരോ സമയത്തിനനുസരിച്ചാണ് നമ്മുടെ കൂടെയൊക്കെ ഓരോരുത്തര് നിൽക്കുന്നത് ഇപ്പോൾ നല്ല സമയം ആണെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാകും അതേ സമയം നമുക്കെന്തെങ്കിലും ഒരു ഇത് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി കൂടെ നിന്നവര് തന്നെ മോശമായിട്ട് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരിതാണ് അപ്പം ആദ്യം ആരേയും അധികമായിട്ട് വിശ്വസിക്കാൻ ഒന്നും പാടില്ല കാരണം നമുക്കത് പിന്നീട് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തീരും അത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും ഒരു വലിയ ഒരു പാഠമായിട്ട് പറയാൻ ഉള്ളത് കാരണം എല്ലാവർക്കും നമ്മള് കാരണം ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ആർക്കും മോശമായ രീതിയിൽ ഒന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാലും നമുക്ക് വരാനുള്ളത് എന്തായാലും വന്നിരിക്കും അപ്പോൾ കൂടുതലായിട്ടും ആരെയും ഒന്നിലേക്കും ഇടപെടുത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തുകൊണ്ടും നല്ലത് തന്നെ നടക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ജീവിതത്തില് ഞാൻ പഠിച്ചൊരു പാഠം എന്നു പറഞ്ഞാൽ ഇതുതന്നെയാണ് പിന്നെ കൂടുതല് എന്താ പറയുക ഒന്നിനോടും നമ്മള് വാശിപിടിക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം